ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്ത വിദൂരമായ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള സൂം മീറ്റ് ഗൂഗിൾ മീറ്റ് വാട്സ്പ്പ് വാട്സ്പ്പ് മീറ്റ് ഈ മൂന്നെണ്ണാണ് ഞാനേറ്റവും കൂടുതലുപയോഗിച്ചിട്ടുള്ളത് അതിലെനിക്കേറ്റവും കൂടുതൽ പൊതുവെ ഇഷ്ടപ്പെടാൻ കാ ഇഷ്ടപ്പെടുന്നത് വാട്സ്ആപ്പ് മീറ്റ് തന്നെയാണ് കാരണം വാട്സ്പ്പിലൂടെ ചാറ്റ് ചെയ്ത് കൊണ്ട് ചാറ്റ് ചെയ്യുകയും ചെയ്യാം കോൺഫെറൻസ് കൂടുകയും ചെയ്യാം നമുക്ക് രണ്ട് പരിപാടിയും നടക്കാം നമുക്ക് എപ്പോഴും നമ്മളാഗ്രഹിക്കുന്നത് ഒരേ ഒരു പരിപാടിയുടെ കൂടെ വേറൊരു പരിപാടി കൂടി ചെയ്യുക എന്നത് തന്നെയാണ് നമ്മളെല്ലാ മനുഷ്യരാഗ്രഹിക്കുന്നത് ആരും ഈ ലോകത്തൊരു പരിപാടി തന്നെ ശ്രദ്ധിച്ചും ശ്രദ്ധയോടെ ഇരിക്കുന്നത് കുറവാണ് പിന്നെ ഈ ഗൂഗിൾ മീറ്റിൻ്റെ ഒരു കുറവെന്നു പറയുമ്പോൾ കുറവായിട്ടൊന്നുമല്ല ഗൂഗിൾ മീറ്റ് ഗൂഗിൾ മീറ്റിൽ നിന്ന് എനിക്കിതുവരെ ഒരു കുറവോ എനിക്കൊരു ഡിസ്അഡ്വാൻടേജ് എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അതിൻ്റെ ഗുണങ്ങളെന്നു പറയുമ്പോൾ ഗുണങ്ങളെന്നു പറയുമ്പോൾ ഗുണങ്ങളെന്നു പറയുമ്പോൾ അതിലോട്ട് കയറുമ്പോഴത്തേനും ഗുണങ്ങളെന്നു പറയുമ്പോൾ ഗൂഗിൾ മീറ്റ് എനിക്ക് പൊതുവെ താൽപ്പര്യം തോന്നാൻ കാരണം അതിൻ്റെ ബാക്ക് ഗ്രൗണ്ട് എഫെക്ട് ചേഞ്ചിങ്ങും അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണെനിക്ക് പൊതുവെയൊരു താൽപര്യം തോന്നിയത് പിന്നെ സൂം മീറ്റിലോട്ട് വരികയാണെങ്കിൽ തന്നെ എനിക്ക് ആ ഒരു അവരുടെ ഒരു ഇൻ്റർവ്യൂസും ആ ഒരു ബാക്ക് ഗ്രൗണ്ട് ചേഞ്ചിങ്ങ് ഫിറ്റിങ്ങ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു അടിപൊളിയാണ് പിന്നെ ഗൂഗിൾ മീറ്റ് സൂം മീറ്റിലോട്ടൊക്കെ വരുമ്പോഴത്തേനും സ്ക്രീൻ ഷെയറിംഗ് ചെയ്യുന്നതൊക്കെ എനിക്ക് പൊതുവേ ഒരു ഇൻട്രസ്റ്റില്ലാത്ത കാര്യമാണ് കാരണം നമ്മുടെ പ്രൈവസിയെ അതു ബാധിച്ചേക്കാം അങ്ങനെ ചിലപ്പോൾ നമ്മുടെ ബാക്ക് ഗ്രൗണ്ടിൽ കിടക്കുന്ന ഇമേജസ് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പം ആദ്യമേ വരുന്നതായിരിക്കും അതൊക്കെ നമ്മുടെ പ്രൈവസീനെ ബാധിച്ചേക്കാം അത് ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലുമുള്ള പക്ഷെ അത് നമ്മുടെ പ്രൈവസീനെ ബാധിച്ചേക്കാം എന്നുള്ളതു തന്നെയാണെനിക്ക് പറയാനുള്ളത് പിന്നെ പിന്നെ പറയാനുള്ളത് സൂം മീറ്റ് സൂം മീറ്റാണെങ്കിലും ഗൂഗിൾ മീറ്റാണെങ്കിലും ഓട്ടോമാറ്റിക്ക് കട്ടായി പോകും അതായത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കാട്ടായിപ്പോകും നമുക്ക് ചിലപ്പോൾ കോൺഫെറൻസ് മൂന്ന് മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മണിക്കൂറായി കഴിയുമ്പോൾ കട്ടായിപ്പോകുന്നെന്നു പറയുമ്പം അപ്പം നമുക്കൊരു നമുക്ക് നമ്മുടേതായൊരു നെഗറ്റീവാണ് അത് ഗൂഗിൾ മീറ്റ് പോലൊരു വലിയൊരു ഗൂഗിൾ ഗൂഗിൾ പോലെ വലിയ സ്ഥാപനത്തിൻ്റെയൊരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ മീറ്റ് സൂമിൻ്റെയൊരു സൂമിങ്ങെന്നു പറയുമ്പോൾ തന്നെ ആ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അതു പോലെ തന്നെയാണ് വാട്ട്സാപ്പ് ഇതെല്ലാം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിന്നു പോകായെന്ന് പറയുകയെന്ന് പറയുന്നതു തന്നെ വളരെ ഒരു നെഗറ്റീവാണ് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നെഗറ്റീവെന്നു പറയുമ്പോൾ നമുക്ക് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പം ഗൂഗിൾ മീറ്റിലോട്ട് വരുമ്പോൾ കൂടുതലും കൂടുതലും ആൾക്കാരും ഉപയോഗിക്കുന്നത് സൂം മീറ്റ് ഗൂഗിൾ മീറ്റ് വാട്സാപ്പ് മീറ്റ് തന്നെയാണ് അതിലേറ്റവും കൂടുതലുപയോഗിക്കുകയെന്നു പറഞ്ഞാൽ ഗൂഗിൾ മീറ്റാണ് പക്ഷേ എൻ്റെ താൽപ്പര്യമെന്നു പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതു പോലെ എൻ്റെ വാട്സാപ്പ് മീറ്റ് തന്നെയാണ് പക്ഷേ ഗൂഗിൾ മീറ്റിലോട്ട് വരുമ്പം ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ആയിട്ട് കണക്റ്റാകുന്നത് ഗൂഗിൾ മീറ്റ് തന്നെയാണ് പിന്നെ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോം എന്നു പറയുന്നത് ഗൂഗിൾ മീറ്റ് തന്നെയാണ് കാരണം ഗൂഗിളിൻ്റെ അപ്ലിക്കേഷൻസെന്നു പറയുമ്പോൾ ഒരു നല്ലടിപൊളി ആപ്ലിക്കേഷൻസാണ് ഗൂഗിളിൻ്റെ എല്ലാ ഗൂഗിളിൻ്റെ എല്ലാ സെറ്റിങ്ങ്സും പ്രോസിജിയേഴ്സും എല്ലാം ആൾക്കാർക്കിഷ്ടപ്പെടുന്നത് ആൾക്കാർ കൗതുകകരമായിട്ട് കൗതുകകരമായിട്ട് ക നോക്കി കാണുന്നതുമൊക്കെയായിട്ടുള്ള ആപ്പുകളാണ് ഗൂഗിൾ മീറ്റ് സൂം മീറ്റൊക്കെ പിന്നെ പിന്നേ പിന്നെ പിന്നെ പിന്നെ നെഗറ്റിവ്സുണ്ട് പോസിറ്റിവ്സുണ്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്സാണെന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും കൂടുതൽ പോസിറ്റിവ്സ് തന്നെയാണ് കാരണം ഇത്രയും ആൾക്കാരെ ബന്ധപ്പെടുത്താൻ പറ്റുകയെന്നു പറയുന്നതു തന്നെ വലിയൊരു കാര്യമാണ് ഈ കാലത്ത് ഒരു ചില ഗൂഗിൾ മീറ്റിലൊക്കെ ഇരുനൂറു മുന്നൂറും പേരൊക്കെ അടങ്ങുന്ന ഗൂഗിൾ മീറ്റ് ഞാൻ കൂടിയിട്ടുണ്ട് അതിനൊക്കെ പിന്നെ വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള കാര്യമാണ് ഒരാളുടെ കൂടെ തന്നെ പത്ത് പേർക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ് ഗൂഗിൾ മീറ്റ് സൊ എനിക്ക് ഇതാണ് പറയാനുള്ളത് ഗൂഗിൾ മീറ്റിനെപ്പറ്റിയും സൂം മീറ്റിനെപ്പറ്റി അതായത് ഞാൻ ഉപയോഗിച്ചു കൊണ്ടുള്ള വീഡിയോ കോൺഫറൻസുകളെപ്പറ്റി പറയുമ്പം എനിക്ക് ഇതു തന്നെയാണ് പറയാനുള്ളത് സൊ ഓക്കെ